എനിക്ക് എൻ്റെ ഒരു ഹോബിയാണ് കോഴി വളർത്തൽ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടംപോലെ കോ കോഴികളുണ്ട് ഞങ്ങളുടെ ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഞങ്ങളുടെ വീട്ടിൽ കോഴി വളർത്തുന്ന കോഴികൾ ഉണ്ടായിരുന്നു അത് കൊണ്ട് തന്നെ തന്നെയല്ല ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ കോഴി ഉണ്ടെങ്കിൽ നമുക്ക് പത്ത് പൈസ പുറത്ത് കൊടുക്കാതെ നമ്മുടെ ആവിശ്യത്തിനുള്ള മുട്ട നമുക്ക് നമ്മുടെ വീട്ടി നിന്ന് തന്നെ കിട്ടും അത് കോഴികളെ നമ്മൾ വേണ്ട രീതിയിൽ പരിചരിക്കണം പിന്നെ പനിയോ ചൊ ചുമ പോലെയൊക്കെ വരുമ്പോഴത്തേക്ക് ആദ്യം മൃഗാശുപത്രിയിൽ പോയി നമ്മൾ അതിന് തക്ക സമയത് മരുന്ന് മേടിച്ച് കൊടുക്കണം ചൂട് സമയത്ത് ഒക്കെയാണ് കൂടുതലും കോഴികൾക്ക് വസന്ത എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ മൃഗാശുപത്രിയിൽ പോകണം മൃഗാശുപത്രിയിൽ പോയി മരുന്ന് മേടിച്ച് കൊടുക്കണം പിന്നെ കൂടും പരിസരമൊക്കെ നമ്മൾ വൃത്തിയായിട്ട് ഉപയോഗിക്കണം ആയി അയല്പക്കക്കാർക്ക് നമ്മൾ അതൊരു ബുദ്ധി കോഴി വളർത്തുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത രീതിയിൽ അതിൻ്റെ കോഴി കാഷ്ടം അതിൻ്റെ പുറത്ത് ചാരം ചാരം വാരിയിടുക അപ്പോൾ അതിൻ്റെ ആ സ്മെല്ല് സ്മെല്ലിൽ നിന്ന് ഒഴിവ് ഒഴിവാകാൻ പറ്റും അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ കോഴിക്കൂട് വൃത്തിയായിട്ട് സൂക്ഷിക്കണം